ആ ഒരു ജീൻസിൻ്റെ ഇത് അറിയാനായിരുന്നു ജീൻസും വേണം ഒരു കുർത്തിയും വേണം എത്രേൻ്റെയാ ഓഫെർ എത്രയായിരുന്നു ഇത് ഉള്ളേ എന്ന പറയാമോ ആലിയ കട്ട് നെക്ക് വേണമായിരുന്നു അപ്പം ഫുൾ കൈ വേണം അമ്പർലാ കട്ടിങ് പോലത്തെ വിരിഞ്ഞു കിടക്കുന്ന ടൈപാണ് വേണ്ടത് അപ്പം അതിനൊക്കെ എത്ര റേറ്റാവും എന്ന് പറഞ്ഞത് അപ്പം അതി കളർ കോഡൊന്ന് പറയാമോ കളറ് ഒക്കെയുണ്ട് ഏതൊക്കെ കളർ വേണം എന്ന്

ഒരു മൂന്നെണ്ണം റെഡ് കളറിൽ ഉള്ളത് വേണം പിന്നെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഒരേ പോലത്തെ പത്താം തീയ്യതി പതിനൊന്നാം തീയ്യതി വേണം ഒരേ പോലത്തെ വേണം ഒരേ പോലത്തെ ഡിസൈനൊക്കെ ഒരേ പോലത്തെ ആയിരിക്കണം

വേറെ വേറെ എന്തൊക്കെയാണ് ജീൻസിൻ്റെയൊക്കെ റേറ്റ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു കാർഗോ ടൈപിനൊക്കെ എത്രയാവുമെന്ന് പറയാമോ ഓക്കെ ഓക്കെ ആ കാർഗോയ്ക്ക് പറ്റിയ ടോപ്പ് ആ ഷർട്ട് പോലെയുള്ള ടൈപ്പ് ഉണ്ടോ ഷർട്ട് ടൈപ് ഷർട്ട് അത് എങ്ങനത്തെയാണ് ഫയി സ്ലീവാണോ അതെയോ ഓക്കെ ഓക്കെ ആ അപ്പം അതിൻ്റെയൊക്കെ റേറ്റൊന്ന് പറയാമോ ഓക്കെ ഈ ലൊക്കേഷൻ എവിടെ ആയിട്ട് വരും എന്ന് കറെക്റ്റ് ലൊക്കേഷനൊന്ന് പറയുമോ ഓ ശരി ആ ബസ്സ്റ്റാൻ്റിൽ എവിടെ ആയിട്ട് വേറെ വേറെ ഒന്നുമില്ല ഓക്കെ താങ്ക് യു മാം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം

ഹലോ ആ മാം പാവാടയുടേത് വേണമായിരുന്നു സാരിയുണ്ടോ ഒരൂ അത്യാവശ്യം വലിയതാണ് വേണ്ടത് ബ്ലാക്ക് കളറ് ബ്ലാക്കും വയിലെറ്റ് കളറും വേണം ഒരു രണ്ടെണ്ണം മതി രണ്ടെണ്ണം സെറ്റായിട്ടുള്ളത് വേണം ആ അപ്പം അതിൻ്റെ റേറ്റ് ഞാൻ പറയാം ഓക്കെ താങ്ക് യു